വലിയ രീതിയില് പ്രേക്ഷകരെ ആകർഷിക്കാൻ പറ്റിയ കലാരൂപങ്ങൾ അല്ലെങ്കിൽ പരിപാടികൾ എന്നൊക്കെ പറയുന്നത് നമുക്ക് എവിടെങ്കിലും ഒരു ഡാൻസ് പരിപാടി അതിന്റെ അകത്ത് നാടോടി നൃത്തം ക്ലാസിക്കൽ ഡാൻസ് പിന്നെ ഇങ്ങനെ പരിപാടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് തെയ്യം വള്ളം കളി വിഷു വിഷുവിൻ്റെ ടൈമില് ഓണം ഓണത്തിൻ്റെ ക്രിസ്മസിൻ്റെ ടൈമിലൊക്കെ നമുക്ക് വലിയ രീതിയില് ആൾക്കാരെ ആകർഷിക്കാൻ വേണ്ടി പറ്റും പ്രത്യേകിച്ച് എടുത്ത് നോക്കുകയാണെങ്കിൽ തെയ്യം തെയ്യത്തിൻ്റെ കാലഘട്ടത്തില് ആൾക്കാരെ ഏതായിരിക്കും ജനം ഒരു സ്ഥലത്ത് നമ്മളിപ്പം പോയി പെട്ട് കഴിഞ്ഞാല് വളരെ അധികം ആൾക്കര് തെയ്യത്തിൻ്റെ ടൈമില് ഏതൊരു തെയ്യം പെട്ടന്ന് പ്രത്യേകിച്ച് വസൂരിമാല പോതി ഇങ്ങനെയുള്ള തെയ്യം കലാരൂപങ്ങളൊക്കെ ഇറങ്ങുന്ന സമയത്ത് ആൾക്കാരുടെ തിക്കും തിരക്കും ആണ് അമ്പലപ്രദേശങ്ങളില് നമ്മൾ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണിതൊക്കെ നമ്മള് കണ്ട് വരുന്നതാണ് അപ്പം തെയ്യത്തോളം ആൾക്കാരെ ആകർഷിക്കാൻ പറ്റിയ ഒര് പരിപാടി ഇല്ലാന്ന് തന്നെ ഞാൻ പറയും ബാക്കിയൊക്കെ അത് കഴിഞ്ഞേ നിൽക്കുന്നുള്ളൂ തെയ്യമാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റായിട്ട് പിന്നെ ഡാൻസിനും നാടോടി നൃത്തത്തിനൊക്കെ ആൾക്കാര് ആകർഷിക്കാം പക്ഷേ അതിനൊക്കെ എന്താ പറയുക ഓരോ താൽപ്പര്യങ്ങൾ ഉണ്ട് പക്ഷേ തെയ്യമെന്ന് പറഞ്ഞ് കഴിഞ്ഞാല് എല്ലാവർക്കും താൽപ്പര്യം ഉള്ള ഒര് കലാരൂപം ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ട് തന്നെ അവിടെ ആണ് ഏറ്റവും കൂടുതല് ആൾക്കാര് ഉണ്ടാവുക എന്നും ഞാൻ പറയുന്നു